തുറസ്സായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം നടത്തുന്നത് എന്ന് ഇന്നും എന്നും തന്നെ സർവ്വസാധാരണമായൊരു കാര്യവാണ് അയിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ആരും അവരത് ചെയ്യാറില്ല കാരണം അവർക്കത് ശീലമായിപ്പോയി അങ്ങനെ തന്നെയാണ് പറയണ്ടത് ശൗചാലയം ഉപയോഗിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല ഓരോ വീടുകളിലും ശൗചാലയം എന്ന ഇതിൽ ഗവൺമെന്റിൻ്റെ ആണേലും എന്തിൻ്റെ പേരിലാണേലും ശൗചാലയം ഉണ്ട് പക്ഷേ ആൾക്കാരത് ശീലിച്ചിട്ടില്ല അവരത് ചെയ്യാറുമില്ല മറ്റ് ആൾക്കാര് പറഞ്ഞ് കൊടുത്താൽ അത് അവര് മുഖവരക്ക് എടുക്കാറുമില്ല തുറസ്സായ സ്ഥലത്ത് നമ്മള് മലമൂത്ര വിസർജ്ജനം നടത്തുമ്പോൾ ബാക്ടീരിയാസ് അല്ലങ്കില് ഇതൊക്കെ വെള്ളത്തിലേക്ക് കലർന്ന് മറ്റ് പല ദോഷങ്ങളും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതവരെ പറഞ്ഞ് ശരിക്കും മനസ്സിലാക്കിയാണ്ട് വേണത് വേറെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാ വീടുകളിലും ശൗചാലയം ഉണ്ട് അത് എങ്ങനത്തെ ആവട്ടെ ഏത് തരം വീടാകട്ടെ എത്ര ചെറിയ വീടാവട്ടെ അവിടെ ഒരു ശൗചാലയമുണ്ട് പക്ഷേ ഇപ്പഴും നമുക്ക് കാണാൻ നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ പാളത്തിൻ്റെ സൈഡില് വന്നാൽ ആൾക്കാര് ഇപ്പോഴും രാവിലെയൊക്കെ വന്നാൽ ഇരിക്കുന്നത് നമുക്ക് കാണാം നമുക്ക് കാണാം അവരിങ്ങനെ പോകുമ്പം ഇരിക്കുന്നത് അത് അങ്ങനെ ട്രെയിൻ പോകുന്നൊന്നും നമ്മള് കാണുന്നൊന്നോ അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവര് കാരണം അവർക്കത് ശീലമായി അതിൻ്റെ ദോഷം എന്താന്നോ അതങ്ങനെ നമ്മള് ചെയ്യരുതെന്നോ അവർക്കറിയാഞ്ഞിട്ടാണോ അത് അവരുടെ ഒരു ദിനചര്യ അതായിട്ടാണോ അവരങ്ങനെ ചെയ്യുന്നത് എന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ ഇപ്പം കേരളത്തിലേക്കത് എനിക്ക് തോന്നുന്നു വളരെ കുറവാന്നു തോന്നുന്നു എന്താന്ന് ചോദിച്ചാൽ എത്ര സാമ്പത്തികമായിട്ടില്ലാത്തവർക്കും ഒരു ശൗചാലയം വീട്ടിലുണ്ടായിരിക്കും